നൃത്തം എന്നു പറയുന്നത് ഒരു കലയാണ് അപ്പോൾ ഒരു കല എന്നു പറയുമ്പോൾ അതിൽ ആസ്വാദകരും ഉണ്ട് അത് അഭ്യസിക്കുന്നവരും ഉണ്ട് അപ്പോൾ നൃത്തം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അനുഗ്രഹമായിട്ടാണ് അവർ ഒരു ഭക്തിപൂർണ്ണമായിട്ടുള്ള ഒരു ഭക്തിയോടെ അർപ്പണത്തോടെ കൂടി ചെയ്യുന്ന ഒരു കലയാണ് നൃത്തം അത് മറ്റുള്ളവരിലേക്ക് അത് ഒരു ആസ്വാദന ശേഷി വളർത്തുകയും അതുവഴി നമുക്കും ഒരു മനസ്സിന് ഒരു സന്തോഷവും നൽകുന്ന ഒരു കലാരൂപമാണ് എന്താണ് കൂടാതെ തന്നെ മനസ്സിന് സന്തോഷമുള്ള വഴി നമ്മളുടെ ആരോഗ്യത്തിന് അത് നല്ല ഇതാക്കുകയും ചെയ്യുന്നു നൃത്തത്തിലൂടെ ഇപ്പോൾ നൃത്തം എന്നു പറയുന്നത് നമ്മുടെ ആരോഗ്യം നൃത്തം ചെയ്യുമ്പോഴേക്കും നമുക്ക് അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്സസൈസും കൂടിയാണ് നമ്മുടെ ശരീരം അനങ്ങുകയും നമുക്ക് അത് വഴി കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസും കൂടിയാണ് ലഭിക്കുന്നത് അപ്പം നൃത്തം എന്താണ് നൃത്തം അല്ലെ കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്ന് പറയുന്നത് ആൾക്കാർ എന്നു പറയുന്നത് വളരെ അനുഗ്രഹമുള്ള ആൾക്കാരാണ് അത് ഒരാൾക്ക് ഒരാൾ അത് ചെയ്തു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നു പറയുന്നത് തന്നെ വലിയ ഒരു കല അല്ലെങ്കിൽ വലിയ ഒരു കാര്യമായിട്ടാണ് എടുക്കേണ്ടത്